എൻ്റെ നാട്ടിലുള്ള ജലസ്രോതസ്സുകൾ എന്നു പറയുമ്പോൾ കിണറുകളുണ്ട് അതേപോലെ കുഴൽക്കിണറുകളുണ്ട് പോരാത്തതിന് പുഴയുണ്ട് പുഴയിൽ നിന്നു നല്ല വലിയ പുഴയാണ് ആ പുഴയിൽ നിന്നും ഫിൽറ്റർ ചെയ്തിട്ടും വെള്ളം എടുക്കാറുണ്ട് ഇങ്ങനെ കുറച്ച് സ്രോതസ്സുകളാണ് ഞങ്ങൾ ജലത്തിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത് കാലാകാലങ്ങളായി ഞങ്ങൾ ഈ ഒരു സ്രോതസ്സാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിന് ആവശ്യം വന്നാൽ കിണറ്റിൽ നിന്നും അല്ലെങ്കിൽ ചിലർ ഫിൽറ്റർ ചെയ്തിട്ടും വെള്ളം പുഴയിൽ നിന്നുള്ള വെള്ളം ഫിൽറ്ററ് ചെയ്തിട്ടും അതേപോലെ കുഴൽ കുഴൽക്കിണർ കുഴിച്ചിട്ടും ഒക്കെയാണ് ഞങ്ങൾ വെള്ളം കണ്ടെത്താറുള്ളത് ഞങ്ങൾ നാല് വീട്ടുകാർ ഞങ്ങളെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കാറ് അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെള്ളം എടുക്കാറ്